ഉണ്ടല്ലോ ലോക്ക്ഡൗണിൽ ഒത്തിരി എല്ലാവരും എല്ലാ വീടുകളിലും വിദ്യാർത്ഥികൾ ഉണ്ടാകും അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ഉണ്ടാകും അങ്ങനെ പിന്നെ മറ്റ് മറ്റ് എന്താ പറയുന്നത് പുറംലോകവുമായിട്ട് പുറം സ്ഥലങ്ങളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ വീട്ടിനകത്ത് പിന്നെ ഇന്ന് ഇപ്പോൾ ഒരുസമയത്ത് പത്രം പോലും ആൾക്കാർ വീട്ടിൽ വരുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലായിരുന്നു പത്രം വരുന്നത് നിർത്തിയ ഭവനങ്ങളും ഇഷ്ടംപോലെയുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒക്കെയുള്ള ആ സമയത്ത് പിന്നെ മൊബൈലും ലാപ്ടോപ്പ്കളും ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൊബൈല്കൾ കേടായത് നമുക്ക് നന്നാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പം കൂടുതൽ കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള പുതിയ എല്ലാ പിന്നെ മൊബൈല്കൾക്ക് ഡിമാൻഡ് ഭയങ്കരമായിട്ട് കടകളിൽ വന്നിരുന്ന സാംസങ് പോലെയുള്ള മൊബൈല്കൾടെ പ്രൊഡക്ഷൻ അതനുസരിച്ച് ഇല്ലാഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ പിന്നെ അതിന് വേണ്ടിയിട്ട് മൊബൈലിന് മുറവിളി കൂട്ടിക്കൊണ്ടു നടന്ന ഒരു സമയം പിന്നെ കൂടെ കുട്ടികളെ വിദ്യ പണ്ടു വിദ്യാർത്ഥികൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കുന്നു കണ്ണിന് കേടാ അവരുടെ പഠിത്തത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നിരുന്ന ടീച്ചേഴ്സ് അടക്കം ഉള്ളയാൾക്കാർക്ക് അവസാനം കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സ്കളെ ആശ്രയിക്കേണ്ടി വന്നപ്പം അവർക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാം എല്ലാ എല്ലാ വീടുകളിലും ഗവൺമെൻറ്റ് ഒക്കെ പോകണം എന്നും മറ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പിന്നെ ബി പി എൽ ലെവലിൽ ഉള്ളവർക്ക് ഏതാണ്ട് മൊബൈല്കളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ എന്നാൽപ്പോലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള പലർക്കും മൊബൈൽ മേടിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു ഓഫീസ്കളിൽ വർക്ക് ചെയ്തുകൊണ്ട് ഓഫീസ്കളിലെ ഡെസ്ക്ടോപ്പ് കംപ്യൂട്ടറ്കളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കോവിഡ് സമയത്ത് പോവാതിരുന്നതുകൊണ്ട് അവർക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കേണ്ടിവന്നു വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ അവർക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു പിന്നെ അതുപോലെ ആൾക്കാർ ആവശ്യങ്ങൾ അറിയുന്ന വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ ജോലിക്കാർ അങ്ങനെയുള്ളവർക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈല് മൊബൈല് എല്ലാവരും യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പ് യൂസ് ചെയ്യട്ടെ ആവശ്യം വന്നപ്പോഴത്തേനും അവർക്കത് വാങ്ങിക്കാതെ അതിൻ്റെ ഉപയോഗം ഇല്ലാതെയിരിക്കാൻ പറ്റാത്തയവസ്ഥ വന്നപ്പോഴ് അവരും കൂടുതലായിട്ട് ലോക്ക്ഡൗണിൽ കൂടുതൽ ആളുകൾ ഈ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്ന് ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസം വീട്ടിലിരുന്ന് ജോലിചെയ്യുന്നതായ നിങ്ങളുടെ അനുഭവം ഞാൻ പിന്നെ ബാങ്ക് പോലുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ദിവസങ്ങളിലൊക്കെ ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരെ ഫോൺ വിളിച്ച് കോൺടാക്റ്റ് കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുന്നു അവർക്ക് മെയില് വിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞാലും ബാങ്ക് പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾക്കത് പറ്റത്തില്ല ദിവസവും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു മാസ്ക്കും ഗ്ലൗസും പിന്നെ കവർ ചെയ്യുന്ന മുഖം ഒക്കെ കവർ ചെയ്യുന്ന ചില്ല് പോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെവെച്ച് കൂടുതൽ സുരക്ഷിതമായി അകലം ഒക്കെ പാലിച്ചും ഒക്കെ ഇരുന്ന് ജോലി ചെയ്യേണ്ടിവന്നു എന്നെ സംബന്ധിച്ച് പിന്നെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആ ലോക്ക്ഡൗണിൻ്റെ പേടിപ്പിക്കുന്ന ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഞങ്ങൾക്ക് പിന്നെ എപ്പോളും ഞങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് ഞങ്ങൾ ബാങ്കേൽ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാങ്കിൽ വരാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് വളരെക്കുറച്ച് അതായത് ഒരു ശതമാനമേ ബാങ്കിങ്ങ് ജോലികൾ നമുക്ക് ലാപ്ടോപ്പേൽ അല്ലെങ്കിൽ മൊബൈലേൽ വീട്ടിലിരിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് ഓഫീസിൽ പോയി ഇരുന്നിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ലോക്ക്ഡൗണിൽ പിന്നെ ഓൺലൈൻ പിന്നെ ജോലി വലിയ ഒരു സ്വാധീനം എന്നിൽ ചെലുത്തിയിട്ടില്ല കുട്ടികളെ കുട്ടികളെ സംബന്ധിച്ച് വീട്ടിലിരുന്നുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം വളരെ നല്ലതായിരുന്നു കാര്യം എന്താണ് വെച്ചാൽ ഒത്തിരി പേർ ഈ കോവിഡ് വന്ന് ഒത്തിരി മരണവും ഒത്തിരി ബിദ്ധിമുട്ടുകളും അനുഭവിച്ച സമയത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം നല്ല ഒരു ഓപ്ഷൻ ആയിരുന്നു അതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെയൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എല്ലാവരും ഫോണിന് അഡിക്റ്റ് ആയിരുന്നു പ്രായമായ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഇല്ലാത്ത വീടുകളിൽ അവർ അതിനകത്ത് നിന്ന് നെറ്റിൽ കയറി ഗെയിമ്കളും പിന്നെ എല്ലാം കളിക്കുകയും ആൾക്കാർ പറയുന്നു പത്രത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട് പേരൻസിൻ്റെ അക്കൗണ്ടിലെ പൈസ നിമിഷനേരംകൊണ്ട് തീരുന്ന തരത്തിലുള്ള ഓൺലൈം ഗെയിംമ്കൾ അപകടം വരെ ഉണ്ടാക്കുന്ന ഗെയിമ്കളൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ കുറേ പേർ കടത്തിൽനിന്ന് കയറി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഓൺലൈൻ വിദ്യഭ്യാസം എന്ന് പറഞ്ഞ് പേരൻസ് അവർക്ക് മൊബൈല് മേടിച്ചുകൊടുക്കാൻ നിർബന്ധിതരായപ്പോഴ് അവർക്ക് പിള്ളേരെ മാനേജ് ചെയ്യാൻ അവർ ഒരു എജുക്കേറ്റഡ് അല്ലാത്തത് ആയതുകൊണ്ട് അല്ലെങ്കിലും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ വരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അവർക്ക് അത് എക്സിറ്റ് പോകാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അവർ എന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഒത്തിരി ഫോൺ മിസ്യൂസ്ഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നെറ്റ് ബാങ്കിങ്ങ് മിസ്യൂസ്ഡ് നെറ്റ് വഴിയുള്ള പഠനം വരുമ്പം അതൊക്കെ അവർ നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മിസ്യൂസ്ഡ് ആയിട്ടുണ്ട് ആവശ്യം ഇല്ലാത്ത ഗെയിമ് ആപ്പ്കളൊക്കെ ഇവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്താ പിന്നെ ഓൺലൈന് അതിന് അതിൻ്റേതായ ഗുണങ്ങളുമുണ്ടായിരുന്നു അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ദൂഷ്യങ്ങളുമുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്